ആ സാറേ ഒര് ഗോൾഡ് വച്ചിട്ട് ലോൺ എടുക്കാനായിരുന്നു ഒരു മാസത്തേക്ക് ഒരു പവന് എത്ര പൈസ കിട്ടും

ഇല്ല വച്ചിട്ടില്ല ആദ്യമായിട്ട് വെക്കുന്നതാണ്

എനിക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ടാണ്

ആ അല്ല എനിക്ക്

ആ ആ അല്ലാണ്ടിത് ആ അത്ര പലിശയായിരിക്കും വരിക

അതെയല്ലേ ആ ആ അത് എന്തുന്നാ കാർഷിക ലോണായിട്ട് കാർഷിക ലോണായട്ട് വെക്കുമ്പോ അതെന്താ അതിൻ്റെ ഇത് വേണ്ടേ നികുതി ചീടാണ് അങ്ങനെ എന്തെങ്കിലും വെക്കണോ

ആ ആ പിന്ന പെട്ടെന്നുതന്നെ കിട്ടുവോ സാറേ ഇത് ആ ആ ആ അത് കിട്ടാണ്ട് ആ ഞങ്ങൾ കുറച്ച് വെള്ളി വാങ്ങിയിട്ട് അതുക്കൊണ്ട് ചെറിയ വൺ സ്റ്റോണിൻ്റെ ഒരു കമ്മലുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആ ഉണ്ട് ആ ആ എന്നാൽ ശരി സാറേ ഞാൻ ഞാൻ അത് രണ്ടു ദിവസം കൊണ്ട് വന്നാൽ മതിയാവുമായിരിക്കുമല്ലേ സാറേ ആ എന്നാൽ ഓക്കെ സാറേ